ഞങ്ങളുടെ പ്രദേശത്തെ ഗതാഗത സൗകര്യങ്ങൾ വിദ്യാഭ്യാസത്തെ എങ്ങനെയാണ് തുണയ്ക്കുന്നതെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇന്ന് പണ്ടത്തെ പോലെയല്ല റബ്ബറൈസ്ഡ് റോഡ് ആ റോഡിലാണെങ്കിൽ കുട്ടികൾക്ക് അതായത് വഴി നടന്നു പോകുന്ന ആൾക്കാർക്ക് നടന്ന് പോകാനുള്ള ഫുട് പാത്തുകൾ അപകടങ്ങൾ അതായത് സ്കൂൾ സ്കൂള അടുത്തുണ്ടെങ്കിൽ അതിനുള്ള സിഗ്നലുകൾ വാഹനങ്ങൾ പതുക്കെ പോകാനുള്ള സിഗ്നലുകൾ ഹമ്പുകൾ അങ്ങനെയുള്ള പലവിധമായ സംവിധാനങ്ങളിൽ നിന്ന് ഉണ്ട് സ്കൂള അടുത്തുണ്ടെങ്കിൽ സ്കൂളിൽ അടുത്തും കൂടെ പോകുന്ന വാഹനങ്ങൾ ശരിക്കും ഓൺ അടിക്കാൻ പോലും സ്കൂൾ ടൈമിലൊക്കെ ഹോൺ അടിച്ചു പോകാൻ പോലും ഇന്നത്തെ സംവിധാനങ്ങൾ സ അനുവദിക്കുന്നില്ല അ അതിൻ്റെ വിദ്യാഭ്യാസമാണ് എന്നത് ഏറ്റവും നല്ല ഒരു രീതിയിൽ കൊണ്ടുപോകുന്നത് ആ രീതിക്ക് സ്കൂൾ പണ്ടത്തെ പോലെയല്ല ഇന്ന് വിദ്യാർത്ഥിനികൾ നടന്നല്ല സ്കൂളുകളിൽ പോകുന്നത് വാഹനങ്ങളിലൂടെ മാത്രമാണ് ഇന്ന് സ്കൂളുകളിൽ ഓരോ സ്കൂളുകളുടെ നാലോ അഞ്ച് ആറും ബസ്സുകളാണ് ബസ്സിൽ കിളി ഡ്രൈവർമാർ കുട്ടികളെ കയറ്റാനും ഇറക്കാനും റോഡ് ക്ളോസ് ചെയ്ത് അപ്പുറത്തേക്ക് വിടാനും ഒക്കെ ഇന്ന് ആയമാരെ നിർത്തിയിട്ടുണ്ട് അങ്ങനെ പല പല സംവിധാനങ്ങൾ ഇന്നുണ്ട് കുട്ടികളാണേലും പൂർണ്ണമായി നല്ല പൂർണ്ണ സുരക്ഷിതത്വത്തിലാണ് ഇന്ന് സ്കൂളുകളിലേക്ക് പോകുന്നതും വരുന്നതും എന്നാലും ഇന്ന് അപകടങ്ങളും കുട്ടികൾ നടന്ന് വരുന്ന വഴിക്കൊക്കെ ഒരുപാട് അപകടങ്ങളും നടക്കുന്നുണ്ട് പക്ഷേ അതൊന്നും നമ്മുടെ ഗതാഗത സൗകര്യം മെച്ചമല്ലാത്തത് കൊണ്ടല്ല

അതൊക്കെ ഓരോ വാഹനങ്ങൾ വരുന്നതിൻ്റെയും ഓരോ ബുദ്ധിമുട്ട് പ്രയാസമാണ് അങ്ങനൊക്കെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ അപകടങ്ങൾ വരുന്നത് എന്നാലും പല പല സ്കൂളുകളിലും ഇന്ന് വാഹനങ്ങളുടെ സൗകര്യങ്ങളൊക്കെ കൂടുതലാണ് കുട്ടികളെ കെയർ ചെയ്യാൻ ആളുകൾ കൂടുതലാണ് അവർക്ക് ആപത്തുകളും അപകടങ്ങളും ഒന്നും വരാതെ സ്കൂളുകാരെ കൂടുതലും വളരെ രീതിയിൾ തന്നെ കൊണ്ടുപോകുന്നു കൊണ്ട് ഗതാഗത സൗകര്യമൊക്കെ ആണെങ്കിൽ ഇന്ന് പണ്ടത്തേതിൽ നിന്നൊക്കെ ഒരുപാട് മെച്ചമുണ്ട് ഇപ്പോൾ കുണ്ടും കുഴികളുമുള്ള റോഡുകളില്ല അതൊക്കെ നികത്തി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു റബ്ബറേസ്ഡ് റോഡ് തന്നെയാണ് ഫുട്പ്പാത്തുകളായാലും സൈഡിലിങ്ങനെ കൈവരികളായാലും അപകടങ്ങൾ വന്ന കുട്ടികളെ അങ്ങോട്ട് വീഴാതിരിക്കാം പണ്ടൊക്കെ ഞങ്ങൾ നടന്ന് പോകുന്ന സമയത്ത് വലത്ത് സൈഡ കൂടി മാത്രമേ നടക്കാൻ പാടുള്ളൂ എന്ന് പറയുമായിരുന്നു ഇന്നത്തെ കുട്ടികൾ അങ്ങനെ നടന്ന് പോകൽ കുറവ് അപൂർവം കുട്ടികൾ മാത്രം ഇന്ന് നടന്ന് വരുന്നു ബാക്കിയെല്ലാം സ്കൂള എല്ലാം സ്കൂൾ വണ്ടി വഴിയും അല്ലെങ്കിൽ ഓട്ടറിക്ഷ വഴി വാഹനങ്ങൾ വഴി മാത്രമാണ് ഇന്ന് കുട്ടികളെ സ്കൂളുകളിൽ ഗതാഗതം ഇന്ന് ഏറ്റവും പണ്ടത്തേതിൽ നിന്നൊക്കെ ഒരുപാട് നല്ല നല്ല നിലയിൽ തന്നെയാണ് ഗതാഗത സംവിധാനം ഇന്ന് നിലനിൽക്കുന്നത് ഹമ്പുകളായാലും കുട്ടികളെ ഗതാഗത റോഡിൽ നിന്ന് ബസ്സുകൾ വന്ന കുട്ടികളെ കയറ്റി വിടാൻ ട്രാഫിക് പോലീസ്കാർ വരെ ഇന്ന് നിൽക്കുന്നുണ്ട് അതായത് അത്രയ്ക്കും അപകടങ്ങളൊന്നും ഉണ്ടാകാതെ അപ്പം നമ്മുടെ സംരക്ഷണങ്ങളൊക്കെ ഒരുപാട് നല്ല നല്ല മാർഗ്ഗങ്ങളിലൂടെയാണ് സ്കൂളിൽ നിന്നും കുട്ടികൾക്കൊക്കെ സ്കൂൾ വാഹനങ്ങളിലൊക്കെയാണ് കൂടുതലും പോകുന്നത് ഗതാഗത മാർഗ്ഗങ്ങളൊക്കെ എപ്പോഴും ഏറ്റവും നല്ല മികച്ച മാർഗ്ഗം തന്നെയാണ്